സ്കൂളില് പഠിച്ചിരുന്ന കാലം മുതല് വിവിധതരം പ്രസംഗമത്സരങ്ങളിലും ഉപന്യാസരചനകളിലും നന്നായി പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു അനുഭവം വെച്ച് കൊണ്ടുതന്നെ വായനയുടെയും എഴുത്തിന്റെയും ലോകത്തിലൂടെ കടന്നുചെല്ലാനായി പലവിധ പല സാഹചര്യങ്ങളിലൂടെയും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതു ഒരു യത്ഥാര്ത്ഥ്യമാണ് നമ്മുടെ എഴുത്തുകള് നമ്മളെ പ്രശസ്തനാക്കാന് മാത്രമുതകുന്നതാകാന് പാടില്ല എന്നൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് നമ്മുടെ എഴുത്തുകള് സമൂഹത്തിന് പ്രചോദനമാകണം എങ്ങനെ നമ്മുടെ ജീവിതം ഒരു ഘടകമാണ് നമ്മുടെ എഴുത്തില് ഞാനൊരു കര്ഷകനാണ് എന്നുള്ളത് കൊണ്ട് എപ്പോഴും കര്ഷകനാണെന്ന് പറയാന് താല്പ്പര്യപ്പെടുന്നൊരാളായതുകൊണ്ട് കര്ഷകന്റെ ജീവിതങ്ങളെങ്ങനെയാണ് പലരും പറഞ്ഞുവെച്ചിരിക്കുന്നതും പറയുന്നതും പറയപ്പെടുന്നതുമായ സംഭവങ്ങളുമായി കര്ഷകരുടെ ജീവിതത്തിന് ബന്ധങ്ങളുണ്ടോ എന്നതിനെ സംബന്ധിച്ചുമുള്ള വിശദമായ താത്വികമായ ഒരവലോകനം നടത്തിക്കൊണ്ടുള്ള ഒരു എഴുത്ത് നടത്തണമെന്നുള്ള ഒരു വലിയ ആഗ്രഹമാണ് നമുക്കുള്ളത് കാലം കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് നമ്മുടേതായ സമയത്തിന്റെയും സാഹചര്യത്തിന്റെയും ഒരവസരം ഉടനെതന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയില് നമ്മുടെ അനുഭവങ്ങൾ കര്ഷകന്റെ ജീവിത സാഹചര്യങ്ങൾ ഇതെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തുറന്നിരുത്ത് ഉണ്ടാകും ആ തുറന്നെഴുത്തിലേക്ക് നമ്മള് നന്നായിത്തന്നെ കടന്നുവരും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്